ആ പിന്നെ ഇപ്പംന്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷയിലൊക്കെ രേഖകളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്തുന്ന് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേഖകളൊക്കെ ഒക്കെന്ന്ച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലൊക്കെയാണ് ഇപ്പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് പാസ്ബുക്കാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്ക്ലിപ്പോൾ ഒരു അക്കൗണ്ട് എടുക്കാൻ പോവാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ അതായത് നമ്മളെ മലയാളത്തിലൊന്നും ഒരു കാര്യോം ഇല്ല നമുക്ക് അതായത് നമ്മളെ ഇംഗ്ലീഷിൽ വേണം എല്ലാം എഴുതി പൂരിപ്പിച്ചു കൊടുക്കാൻ എന്നിട്ട് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടാണെങ്കിലും ഒരു എ ടി എം ആണെങ്കിലും എന്തു എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പോൾ വയസ്സായ ആൾകാർക്കൊന്നും അത് അറിഞ്ഞുന്ന് വരില്ല അപ്പോൾ ബാങ്കിൽ ആരോടെങ്കിലും വരുന്നവരോടൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മളിതൊക്കെ പൂരിപ്പിക്കാൻ അപ്പോൾ അതെന്നെ വലിയൊരു ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും മലയാളത്തിലും കൂടെ വരണം കാരണം എന്താന്ന്ച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ചിലർക്ക് ഇംഗ്ലീഷ് അറിയാം ചിലർക്ക് മലയാളം അറിയാം

പിന്നെ ഇംഗ്ലീഷ് അറിയണം ഇപ്പം ചെക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണെങ്കിലും ഇംഗ്ലീഷിലെഴുതണം അതേപോലെ ഇപ്പം നമുക്കൊരു ഒരാൾക്ക് നമ്മളിപ്പോൾ പൈസ ഇട്ടു കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ അവർ എടുത്ത ഇട്ട പൈസ നമ്മൾ എടുക്കാനാണെങ്കിലും നമുക്കൊരു അക്കൗണ്ട് എടുക്കുവാണെങ്കിലും ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പിന്നെ ഇത് വേണം പിന്നെ ഇംഗ്ലീഷ് അറിയണം ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത ഒരവസ്ഥയാണ് അപ്പം എൻറ്റൊരു അഭിപ്രായത്തിൽ പറയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളോം ഇപ്പം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് എഴുതാം മലയാളം അറിയുന്നവർക്ക് മലയാളോം എഴുതാം അങ്ങനെയാകുമ്പോൾ നമുക്കേറ്റവും വലിയൊരു ഉപകാരമായിത്തീരും